ഇപ്പം വയനാട് ജില്ലയിലെ കാലാവസ്ഥ പൊതുവെ നല്ല രീതിയിലുള്ള കാലാവസ്ഥ കാര്യങ്ങളൊക്കെയാണ് കാരണമെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പൊതുവെ കാടുകളും മലനിരകളും അങ്ങനത്തെ ഏരിയാസാണ് അപ്പം നല്ല രീതിയിലുള്ള ഒരു കാലാവസ്ഥയാണ് വയനാട് ജില്ലയെ അപേക്ഷിച്ച് ഉള്ളത് കാരണമെന്ത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം നല്ല ചൂടുള്ള സമയമാണെങ്കിലും ലേശം പോലും തണുപ്പില്ലാത്ത ഒരു സമയം അങ്ങനെ വരാറില്ല ചെറിയ ഒരു കാറ്റടിച്ചാൽ തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള തണുപ്പ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ആ അങ്ങനത്തെ ഒരു ടൈമ് നല്ലൊരു കാലാവസ്ഥയാണ് പക്ഷേ ഇപ്പോഴത്തെ കാലാവസ്ഥാന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ടൈമിലൊക്കെ മഴ പെയ്യേണ്ട ഒരു ടൈമാണ് കാരണമെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആഗസ്റ്റ് മാസം നമുക്ക് ജൂലൈല് തീരെ മഴ പെയ്തട്ടില്ല അപ്പോൾ ഈ ടൈമിൽ മഴ പെയ്യേണ്ട ഒരു കാലാവസ്ഥയിൽ ഇപ്പം നമുക്ക് നല്ല രീതിയിലുള്ള ചൂടും ഭയങ്കര വെയിലിൻ്റെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് കാരണം ഇനിയുള്ള കാലം ഇനിയുള്ളൊരു ജീവിതം എങ്ങനെയായിരിക്കുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്യേണ്ട ടൈമിൽ മഴയില്ല അപ്പം ആ സമയത്ത് നമുക്ക് ചൂട് കാര്യങ്ങളൊക്കെയാണ് പിന്നെ നമുക്ക് തണുത്ത കാലാവസ്ഥന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഋതു കാ ആ ടൈമിലക്കേണ് തണുത്തൊരു കാലാവസ്ഥാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിസംബറ് ജനുവരി ആ ഫെബ്രുവരി ആ മാസങ്ങളിലാണ് കൂടുതലായിട്ടും തണുപ്പ് കാര്യങ്ങളൊക്കെ ഉള്ളത്